ആ ഗുരുവിൽ നിന്നാണ് സാധാരണ പാട്ടൊക്കെ പഠിക്കുന്നത് ഞാനൊക്കെ പാട്ട് പള്ളിയിൽ ധ്യാനിപ്പിക്കാനൊക്കെ അച്ഛന്മാർ വരുമ്പോൾ കൊച്ചു കൊച്ചു പാട്ടുകളൊക്കെ പഠിപ്പിക്കാറുണ്ട് അവരുടെ ഒപ്പത്തിന് താളത്തിന് പാട്ടു പാടും അതു പാട്ടു കേട്ടു നല്ല പാട്ടുകൾ നല്ല രസമായിട്ട് ധ്യാനത്തിനും പിന്നെ ക്യാമ്പിനും ഒക്കെ കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ പഠിക്കുമ്പോൾ ക്യാമ്പിനൊക്കെ പോയപ്പോൾ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള പാട്ടെ ഞാൻ പഠിച്ചിട്ടുള്ളു നല്ലതാണ് ഗുരുവിൽ നിന്നുള്ള നല്ല അനുഭവമാണ് ധ്യാനത്തിനും ക്യാമ്പിനും ഒക്കെ പോകുമ്പം പഠിക്കുന്നതും പാട്ടൊക്കെ പഠിക്കുന്നതും നല്ലൊരു അനുഭവമാണ്